നിങ്ങളുടെ വീട്ടിൽ കുടുംബാംഗങ്ങൾ ഒത്തുകൂടുന്ന വിശേഷ ആഘോഷങ്ങളെ പറ്റി പറയാമോ കുടുംബാംഗങ്ങൾ കുടുംബാംഗങ്ങൾ ഒത്തുചേരുന്ന പ്രധാന അവസരങ്ങളെന്ന് പറയണത് പ്രധാനമായിട്ട് പറയാനുള്ളത് വിഷു ഓണം അതുപോലെ ഇവിടെ ഞങ്ങളുടെ തറവാട്ട് ക്ഷേത്രത്തിൽ ഉത്സവമുണ്ട് പിന്നെ ഫാമിലിയിൽ ഉണ്ടാകുന്ന കുടുംബാംഗങ്ങളുടെ ബർത്ത്ഡേ അല്ലങ്കിൽ കല്യാണം ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ കുടുംബാംഗങ്ങളെല്ലാവരും ഒത്തു ചേരാറുണ്ട് പിന്നെ വിഷു ഓണം വരുമ്പോൾ വീട്ടിൽ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒത്ത് ചേരും ഇപ്പോൾ ഈ കഴിഞ്ഞ വിഷുവിന് തന്നെ എല്ലാവരും വീട്ടിലെത്തുകയും എല്ലാവരും ഒരുമിച്ച് കണി ഒരുക്കുകയും അതുപോലെ വിഷുവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കൈനീട്ടം കൈനീട്ടം അതൊരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണല്ലൊ എല്ലാവർക്കും ഒരു കൈനീട്ടം കിട്ടുക എന്ന് പറയുന്നത് തന്നെ വളരെ ഒരു അനുഭവമാണ് അതെല്ലാം പിന്നെ അതുപോലെ വിഷു സദ്യ ഒരുക്കുക വിഷു കണി ഒരുക്കുക അതിനായിട്ട് പല പഴ വർഗ്ഗങ്ങളൊക്കെ ശേഖരിക്കുക പിന്നെ വിഷു സദ്യ ഒരുക്കാൻ എല്ലാവരും ഒത്തുചേരും വിഷു സെപ്ഷ്യൽ പായസവും അതുപോലെ അവിയൽ സാമ്പാർ കൂട്ടുകറി ഇങ്ങനെയുള്ള പലഹാരങ്ങളും കറികളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്നു അതുപോലെ പലതരത്തിലുള്ള വിശേഷങ്ങളൊക്കെ പങ്ക് വച്ചിരിക്കുക എന്നുള്ളതൊരു അനുഭവമാണ് പിന്നീട് പിന്നെ വരുന്നത് ഓണം ആണ് ഓണം നമ്മുടെ കേരളീയർ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു സാംസ്കാരിക ഉത്സവമാണല്ലോ ആ അവസരത്തിലും ഇതുപോലെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒത്തുചേരും തലേ ദിവസം തന്നെ എല്ലാവരും എത്തിച്ചേരും അതുപോലെ മാവേലിനെ എതിരേൽക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യും മാവേലിനെ ഒരുക്കാൻ തൃക്കാക്കര അപ്പനെയൊക്കെ ഇരുത്തുവാനും അതുപോലെ പൂവട പൂവടയുണ്ടാക്കി മാവേലിനെ വരവേൽക്കുന്നതൊക്കെ രാവിലെ തന്നെ വെളുപ്പിനെ തന്നെ ഉണർന്ന് മാവേലിനെ ഒക്കെ വരവേൽക്കും പൂവട ഒക്കെ ഉണ്ടാക്കും അതുപോലെ ഓണക്കോടി കുടുംബത്തിലെ തന്നെ അച്ഛനും അമ്മയുമൊക്കെ ഞങ്ങൾക്ക് ഒക്കെ ഓണക്കോടി ഒക്കെ വാങ്ങി തരും അതൊക്കെ ധരിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നു പിന്ന അതുകഴിഞ്ഞ് ഓണസദ്യക്കുള്ള ഒരുക്കങ്ങങ്ങളാണ് എല്ലാവരും ഒരുമിച്ച് ഓണസദ്യ ഒക്കെ ഒരുക്കുന്നു പായസവും വറത്തുപ്പേരിയും അതുപോലെ പല തരത്തിലുള്ള കറികളും എല്ലാം ഉണ്ടാക്കി എല്ലാവരും ഒരുമിച്ച് നിലത്തിരുന്നാണ് സദ്യയൊക്കെ കഴിക്കുന്നത് ഒരുമിച്ച് എല്ലാവരും നിലത്ത് ഇരുന്ന് തൂശനിലയിൽ സദ്യയൊക്കെ കഴിക്കുന്നു അതുകഴിഞ്ഞ് പല തരത്തിലുള്ള കളികളൊക്കെ കളിക്കാറുണ്ട് ഊഞ്ഞാലൊക്കെ കെട്ടി ആടും അതുപോലെ പാട്ടുകൾ പാടുന്നു ഓണക്കളികൾ പിന്നെ ഇപ്പോൾ ഉള്ള ട്രെൻ്റ് എന്ന് പറയുന്നത് എല്ലാവരും ഒരുമിച്ച് ഒരു സെൽഫി എടുക്കുക ഫോട്ടോ സെക്ഷനൊക്കെ നടത്തുക

അതാണ് ഓണത്തിൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായാലും അവിടെയും ഇപ്പോൾ ഓണാഘോങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് നമ്മൾ സ്കൂളിലായാലും കോളേജിലായാലും അതു പോലെ ഓഫീസ് സ്ഥലത്തായാലും ഓണാഘോഷങ്ങളൊക്കെ നടത്താറുണ്ട് പിന്നീട് വരുന്ന നമ്മുടെ കുടുംബത്തിലേറ്റവും പ്രധാനപ്പെട്ട അവസരം എന്ന് പറയുന്നത് ബർത്ത്ഡേ സെലിബ്രേഷൻസാണ് പിന്നെ അതുപോലെ അംഗങ്ങളുടെ ആരുടെ എങ്കിലുമൊക്കെ വിവാഹം പോലുള്ള ആഘോഷങ്ങളാണ് അതിനും നമ്മൾ എല്ലാവരും ഒത്തുചേരാറുണ്ട് പിന്നെ ഉത്സവം നമ്മുടെ തറവാട്ട് ക്ഷേത്രത്തിൽ തന്നെ ഉത്സവം അത് ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കും അപ്പോൾ മറ്റ് നമ്മുടെ ബന്ധുക്കൾ ദൂരെ നിന്നുള്ള ബന്ധുക്കളൊക്കെ എത്തിച്ചേരും ഉത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് അതും ഞങ്ങളെല്ലാവരും ഒത്തുചേരുന്ന ഒരു അവസരമാണ് പാട്ടും ഡാൻസൊക്കെ ആയിട്ട് അതുപോലെ ക്ഷേത്രത്തിലെ ചടങ്ങുകളിലൊക്കെ ഭക്തി പൂർവ്വം പങ്കെടുക്കുക്ക താല ഘോഷയാത്ര അതുപോലെ തിരുവാതിര കളി അങ്ങനെയുള്ള ഞങ്ങളുടേതായ പെർഫോമൻസൊക്കെ ക്ഷേത്രത്തിൽ ചെയ്യാറുണ്ട് എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു അവസരമാണ് തറവാട്ട് ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറയുന്നത് അതുപോലെ മറ്റൊരു വിശേഷ അവസരമാണ് ഞങ്ങളുടെ ഇവിടെ നടത്തുന്ന ഒരു ഈ പ്രത്യേകമായിട്ടുള്ള പൂജ കുടുംബ പരമായിട്ടുള്ള പൂജകളൊക്കെ നടത്താറുണ്ട് അപ്പോഴും ഇതുപോലെ ബന്ധുക്കളൊക്കെ എത്തി ചേരും